പാലക്കാട് പൊതുവെ ഒരു കാർഷികമായിട്ട് കൂടുതലായിട്ടുള്ള ജില്ലയാണ് അപ്പോൾ ആൾക്കാര് അധികവും നമ്മുടെ കാർഷിക കൃഷിതന്നെയാണ് പൊതുവെ എന്താ പറയുക ഫോളോ ചെയ്യുന്നത് പിന്നെ നമുക്ക് അതില് നോക്കുവാണ് എന്ന് പാറയുമ്പോൾ ഈ എന്താ പറയാ നെയ്ത്ത് നെയ്ത്ത് നമ്മുടെ നാട്ടില് അത്യാവശ്യം പ്രചാരത്തിൽ ഉള്ള ഒരു എന്താണ് വ്യവസായം തന്നെയാണ് നെയ്ത്ത് പിന്നെ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കണ കാര്യത്തിൽ നമുക്ക് പാലക്കാട്ടുകാർക്ക് കുറച്ചും കൂടെ ഒരു മുൻകൈ ഉണ്ട് പാലക്കാട് ഈ മറ്റേ ബ്രഹ്മിൻസ് ഹോട്ടല് അങ്ങനത്തെ നോക്കുകയാണ് എന്ന് പറയുമ്പോൾ അവര് കുറച്ചും കൂടെ ഒരു മുന്നിലേക്ക് നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെ നമുക്ക് പാലക്കാട് കാണാൻ പറ്റുന്ന പ്രാദേശികമായ തൊഴില് ഈ എന്താ പറയുക ഈ മരപ്പണി അതായത് മരത്തിൽ കൊത്ത് പണി അതിൻ്റെ കാർപ്പൻ്റർ അങ്ങനത്തെ വർക്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കാണാൻ പറ്റും പിന്നെ എന്താണ് പറയുന്നത് പാലക്കാട് ജില്ലയിൽ പിന്നെ നമുക്ക് പാലക്കാട് ജില്ലയിൽ നെയ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ അത്യാവശ്യം നല്ല പ്രചാരത്തിൽ ഉള്ള ഒരു വർക്ക് തന്നെയാണ് നമ്മുടെ നെയ്ത്തിന്റെ തുണി അതിൻ്റെ വ്യവസായം